നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതു പോലെ തന്നെ നിരവധി സാമ്പത്തികത്തിൽ മുന്നോട്ട് നില്ക്കുന്നവരും പിന്നോക്കം നില്ക്കുന്നവരുമായിട്ട് നിരവധി കുട്ടികളാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത് നമ്മുടെ കേരളത്തില് വച്ചുനോക്കുമ്പോള് കൂടുതലായിട്ടും സാമ്പത്തികം ഉള്ളവരുമുണ്ട് കുറഞ്ഞവരുമുണ്ട് അവരിൽ തന്നെ തീരെ സാമ്പത്തികം കുറഞ്ഞവരും സമ്പത്തിൽ ഉന്നതിയിൽ നിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തികമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് ഗവൺമെൻ്റിൻ്റെ രീതിയിൽ നിരവധി ഗവൺമെൻറ്റ് സ്കൂളുകളുണ്ട് അതുപോലെതന്നെ അവർക്കുയർന്ന ഉയർന്ന രീതിയിൽ പഠിക്കാൻ കഴിവുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട് നിരവധി സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് പദ്ധതികളും അതുപോലെതന്നെ പഠിപ്പിക്കുവാനായിട്ട് കൂടുതൽ ഗവൺമെൻറ്റ് കോളേജുകളും സർക്കാരിൻ്റെ പദ്ധതിയിലുണ്ട് അവർക്ക് പിന്നീട് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസത്തിന് ഗവൺമെൻ്റിൻ്റെ രീതിയിലുള്ള നിരവധി സ്കോളർഷിപ്പ് പദ്ധതികളായിട്ടുള്ള സാമ്പത്തിക ധനസഹായങ്ങൾ ഗവൺമെൻ്റ് ഇപ്പോള് നൽകി വരുന്നുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികൾക്ക് ഗവൺമെൻ്റിൻ്റെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ധനസഹായങ്ങളും മറ്റും നൽകുന്നത് വളരെ ഉചിതമായ തീരുമാനങ്ങളാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കുടുംബങ്ങളിലെ നമ്മള് സർവേ ചെയ്ത് കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായങ്ങളും മറ്റു സഹായങ്ങളും എൽ നൽകുക എന്നുള്ള ഏറ്റവും വലിയ നല്ലൊരു തീരുമാനമായിരിക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുടുംബങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിൽ കുറേയുണ്ട് അവയൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് അവർക്കു വേണ്ട സഹായങ്ങളൊക്കെ നൽകാന്ന് നൽകുകയായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം കുട്ടികൾക്കു പ്രാഥമിക വിദ്യാഭ്യാസം ആവശ്യമായ ഒന്നാണ് കാരണം ഇപ്പോഴുള്ള കുട്ടികൾക്ക് വലിയ പഠനം ഇല്ലെങ്കിൽ പിന്നീടവർക്കു ഭാവിയിലേക്ക് എന്താകണം എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പഴയകാല വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞുകഴിയുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പഠിക്കുക എന്നിട്ട് പോയി എഴുതുക അങ്ങനെ ജയിപ്പിച്ചു വിടുന്നൊരു സമ്പ്രദായമാണ് ഇപ്പോഴത്തെ കുട്ടികളെന്നു പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനെയല്ല അവർക്ക് വളർന്നുവരുന്ന രീതിയിൽ ഇപ്പോഴത്തെ തലമുറ തന്നെ വളർന്നുവരുന്ന രീതി തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ അറിയാന് പറ്റും അതുകൊണ്ടുതന്നെ എല്ലാ കാര്യങ്ങളും തന്നെ അറിയാവുന്ന രീതിയിലായതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസ രീതിയിലുള്ള സെറ്റപ്പുകള് നൽകുകയാണെങ്കിൽ കുട്ടികൾ കൂടുതൽ പഠിക്കുവാനും പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ നൽകി കുട്ടികൾ കൂടുതൽ സ്കൂളിലേക്കു വരുവാനുള്ള ചാൻസുകൾ കൂടുതലാണ് അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്ക് ഡിജിറ്റ് എജ്യൂക്കേഷൻ നൽകുകയാണെങ്കിൽ കുട്ടികൾക്ക് കുട്ടികൾ കൂടുതൽ ആകൃഷ്ടരാവുകയും അവയിലേക്ക് പഠിത്തത്തില് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാനുള്ള സഹായം കൂടുതൽ സഹായം അവർക്ക് ഉചിതമായിരിക്കും പ്രാഥമിക വിദ്യാഭ്യാസമെന്നു പറഞ്ഞാല് കെ ജി മുതൽ ഒരു പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകി ചെറിയ രീതിയിൽ ധനസഹായം നൽകി അവരെ മുന്നോട്ടേക്കു കൊണ്ടുവരാനായിട്ട് നിരവധി ക്ലബ്ബുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതായത് ലയൺസ് ക്ലബ് എൻ എസ് എസ് ക്ലബ്ബുകൾ അങ്ങനെയുള്ള നിരവധി പൊതു പ്രവർത്തന പ്രവർത്തന കേന്ദ്രങ്ങളുണ്ട് അവയ്ക്ക് അവ കുറേ നമുക്കറിയാവുന്ന വയുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊടുത്തുകഴിഞ്ഞാൽ അവർ കൂടുതലും അവർക്കു സഹായങ്ങൾ നൽകി കുട്ടികളെ പഠിപ്പിക്കുവാനും കുടുംബത്തിനു വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുവാനും അവർക്കു വേണ്ട ധനസഹായങ്ങൾ നൽകാനും ഇവർക്ക് സാധിക്കും അങ്ങനെയുള്ള കുട്ടികളെന്നു പറഞ്ഞുകഴിഞ്ഞാല് പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടാതെ കൂടുതൽ പഠിക്കാതെ കൂലി വേലകൾക്കു തന്നെ അഞ്ചാം ക്ലാസ് കഴിയുമ്പോഴേ കൂലിവേലകൾക്കു പോകുന്ന കുട്ടികളെ നിരവധിയുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകി അവരെ തിരിച്ചുവിളിച്ച് നല്ലൊരു വിദ്യാഭ്യാസ യോഗ്യതയോടെ അവർക്ക് മിനിമം ഒരു കോളേജ് ഡിഗ്രി എങ്കിലും നൽകുന്ന രീതിയില് വളർന്നുവരാനായിട്ട് പിള്ളേർക്ക് ആവശ്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകണമെങ്കിൽ അവർക്കാവശ്യമായ വിദ്യാഭ്യാസം നൽകണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സമൂഹത്തിൽ പിന്നെയൊരു വില ഉണ്ടാവുകയുള്ളൂ എന്നു നമുക്ക് നിശ്ശേഷം പറയാൻ സാധിക്കും കാരണം കുട്ടികൾക്കു പ്രാഥമിക വിദ്യാഭ്യാസം എന്നു പറയുന്നത് അവർക്കു ഭാവിയിലേക്കുള്ളൊരു സമ്പത്താണ് കാരണം ഒരു വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി എന്നു പറഞ്ഞു കഴിയുമ്പോൾ ആ കുടുംബത്തിനു തന്നെ ഒരു നല്ലൊരു സംഭാവനയാണ് കാരണം വിദ്യാഭ്യാസമില്ലാത്തവനേക്കൾ വില നമ്മളിന്നു വിദ്യാഭ്യാസം ഉള്ളവനാണ് അതുപോലെ തന്നെ നല്ലൊരു സ്കൂളില് പഠിക്കുക എന്നു പറഞ്ഞത് ഒരു കുട്ടിയെ സംബന്ധിച്ചടത്തോളം ഒരു സ്വപ്നമാണ് കാരണം പൈസയുള്ളവന് മാത്രമാണ് ഇപ്പോള് നല്ല സ്കൂളില് പഠിക്കുകയും അവയിൽനിന്ന് വ്യത്യസ്തമായിട്ട് യാതൊരു മറ്റേ പൈസ ഇല്ലാത്ത പിള്ളേർ പഠിക്കുന്നതെന്നു പറഞ്ഞാല് കോളേജ് സ്കൂളില് പഠിക്കുകയെന്നു പറഞ്ഞുകഴിഞ്ഞാല് പഠിക്കുന്ന പിള്ളേർക്ക് തന്നെ ഒരു മോശക്കേടായിരിക്കും കാരണം അവർക്കു തന്നെ ഒരു നാണമായിരിക്കും ഇവിടെയൊക്കെ പോയി പഠിക്കുക എന്നു പറയുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ കുറേയൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ടുള്ള ധനസഹായങ്ങൾ നമ്മുടെ നിരവധി ക്ലബ്ബുകൾ വഴി കണ്ടുപിടിക്കുക അത് ലയൺസ് ക്ലബ് പോലത്തെ ക്ലബ്ബുകൾ വഴി കണ്ടുപിടിച്ച് അവർക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകി അവരെ പഠിപ്പിക്കുക പിന്നീട് പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാം എന്നുള്ളത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു വലിയ കാര്യം അതുപോലെ തന്നെ അതുകൊണ്ടാണ് കുട്ടികൾക്കു പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടു നേരിടുന്ന കുടുംബങ്ങളെ നമുക്ക് നിരവധി രീതിയിൽ നമ്മള് സഹായിക്കാൻ സാധിക്കുമെന്ന് പറയാന് കഴിയുന്നതും